എൻ്റെ തോട്ടത്തിൽ വളരുന്ന പൂക്കൾ ഞാൻ പറിക്കുവൊന്നുല്ല അത് പൂച്ചെടിയിൽ തന്നെയിങ്ങനെ വളരാൻ വേണ്ടി വക്കും അത് അങ്ങനെ ആരേം പറിപ്പിക്കൂല്ല ആരെങ്കിലും ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കൂല്ല അപ്പോൾ പൂക്കൾ നശിപ്പിക്കുന്നത് ഇഷ്ട്ടമല്ല പിന്നെ റംബൂട്ടാൻ എന്ന് പറഞ്ഞൊരു പഴമുണ്ട് അത് ഞാൻ അതിൻ്റെ കൊമ്പ് അങ്ങനെ കൊമ്പെല്ലാം ചെറുങ്ങനെ വെട്ടുന്നല്ലാണ്ട് ആർക്കും അങ്ങനെ ന നശിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കൂല്ല അതങ്ങനെ വെട്ടി നശിപ്പിക്കുവൊന്നുമില്ല പിന്നെ പൂ പൂച്ചെടികളെല്ലാം കുറച്ച് കമ്പെല്ലാം വെട്ടി ആർക്കെങ്കിലും വേണേൽ കൊടുക്കുംന്നല്ലാണ്ട് ആവശ്യമില്ലാണ്ട് വെട്ടി നശിപ്പിക്കൂല്ല എനിക്ക് പൂ പൂ പൂക്കളും മറ്റ് പഴ പഴവർഗ്ഗങ്ങളും മറ്റ് നട്ട് പിടിപ്പിക്കാൻ വളരെ ഇഷ്ട്ടമാണ് അതുകൊണ്ടു സ്ഥലോ എല്ലാം കുറവാണ് എന്നാലും എല്ലാം നാട്ടുണ്ടാക്കും ഞാൻ അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ട്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പൂക്കളെല്ലാം കുറച്ചേയുള്ളൂ എന്നെങ്കിലും അത് സൂക്ഷിച്ച് അതിനെ നല്ല സംരക്ഷിക്കും അത് നന്നായി വളരുന്നുണ്ട് പഴങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു ചെടി മാത്രമേ ഉള്ളു റംബൂട്ടാൻന്ന് പറഞ്ഞ ചെടി പിന്നെ മാങ്ങയുണ്ട് ചക്കയുണ്ട് അങ്ങനെയുള്ള എല്ലാ ചെടികളും ഉണ്ട് അത്യാവശ്യം ഇത്രയൊക്കെ ഉള്ളൂ